ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ പിറന്നാളും അതുപോലെത്തന്നെ അവരുടെ വിവാഹ വാർഷികമൊക്കെ വരുന്ന സമയത്ത് എനിക്ക് സ്വന്തമായിട്ടൊരു ഒരു സാധനം വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഞാൻ സ്വന്തമായി വരച്ച് എൻ്റെ അന്നത്തെ ചിന്തയിൽ വരുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ പേപ്പർകൊണ്ട് ഉണ്ടാക്കി ഗ്രീറ്റിംഗ് കാർഡുകളൊക്കെ ഉണ്ടാക്കി അതായിരുന്നു ഞാൻ അവർക്ക് പിറന്നാളിനും അതുപോലെത്തന്നെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്കൊക്കെ ഞാൻ അവർക്ക് കൊടുക്കാറുള്ളത് ഞാനൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്ന ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു ഫ്ലവറ് അതിനേക്കാട്ടിയും അവർക്ക് കൂടുതൽ മനോഹരമായി തോന്നിയിട്ടുണ്ടാവും അത് അതുപോലെത്തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഞാൻ ചെറുപ്പത്തിൽ ഫസ്റ്റ് സ്റ്റാൻ്റേർഡിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങോട്ട് തരുന്നതും അവരിങ്ങനെ എന്തെങ്കിലും ചിത്രം വരച്ചത് അവർ സ്വന്തം അവരുടെ കൈകൾകൊണ്ട് തന്നെ ചിത്രം വരച്ചതും അവരുണ്ടാക്കിയിട്ടുള്ള ചില ചില ഫ്ളവേഴ്സ് അത് കളറ് ചെയ്ത് തരും എനിക്കും ഒരുപാട് എൻ്റെ ബർത്ത് ഡേയ്ക്കൊക്കെ അവർ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് എനിക്ക് കൂടുതൽ അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കൈകൊണ്ടു ചെയ്യുന്ന കലകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം